സ്റ്റേജൂ ഷോകളില് ഡാന്സിനായിട്ട് കൂടുതല് പേരും ഉപയോഗിക്കുന്ന പാട്ടുകളാണ് അവ അവ ഒരു പ്രത്യേക വൈബുള്ള പാട്ടുകളാണ് കല്യാണ വീടുകളിലും കല്യാണ തലേന്നുകളും ഹല്ദി പ്രോഗ്രാമുകളിലും ഈ ബോളിവുഡ് പാട്ടുകള് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് കേരളത്തിലെ സിനിമ പാട്ടുകളും അവയേക്കാള് കൂടുതല് ബോളിവുഡ് പാട്ടുകളാണ് ഉപയോഗിക്കുന്നത് ബോളിവുഡ് മാത്രമല്ല ടോളിവുഡും ടെപ്പാ കൊട്ട് ഡാന്സുകള്ക്കായി ടോളിവുഡ് പാട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഫീല് ഗുഡ് ഡാന്സുകള്ക്കായിട്ട് കേരളത്തിലെ പാട്ടുകളും കുറച്ച് ടെപ്പാകുത്ത് പാട്ടുകള്ക്കായി ടോളിവുഡ് പാട്ടുകളുമാണ് ഉപയോഗിക്കുന്നത് ഇപ്പഴും സ്റ്റേജ് ഷോകളില് തിളങ്ങി നില്ക്കുന്ന പാട്ടുകളാണ് ബോളിവുഡ് പാട്ടുകള് ഹിന്ദി സിനിമയിലെ പാട്ട് രംഗങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്